സാധാരണ തുടങ്ങുമ്പം ബീനസ് ഉണ്ടാക്കുന്ന മിക്ക മിസ്റ്റേക്കെന്നുവെച്ചാ ബാലൻസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അത് അത് അപ്പം അത് ഓവർക്കം ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യണം അപ്പം ഇങ്ങനത്തൊരു മാറ്റം എങ്കിൽ എന്താ പറയാ ആയിത്തറ കോമൺ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നാണ് ബാലൻസ് കിട്ടത്തില്ല എന്നു പറഞ്ഞത് അപ്പം നമ്മൾ അത് കൂടുതൽ ചെയ്യേണ്ടെന്നു വെച്ചാൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം ഇതിൽ വേറെ ഇട്ടാ മോസ്റ്റ്ലി പ്രാക്ടീസാണ് അതുകൊണ്ടാ നമ്മൾ വേറെ ചെയ്യുന്നത് നമ്മൾ ചിലപ്പം ഒരേ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ആളോട് നമ്മൾ ഒന്ന് ചോദിച്ച് എങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് രീതിയൊന്ന് ചോദിക്കണം അത് അതുവല്ലാതെ മോസ്റ്റ്ലി അവർ പറഞ്ഞു തരുന്ന ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും

ബൈക്ക് ഓടിച്ച് ഓടിച്ച് കുറെ നാൾ ഓടിക്കുന്നു അതിപ്പം അതൊക്കെ ആ ഒരു ബാലൻസെരും അപ്പം ഇത് ഓവർക്കം ചെയ്യാൻ ഒരു ഒറ്റൊരു വഴിയേ ഉള്ളു എന്നതാണ് പ്രാക്ടീസ് അതു അല്ല നമുക്ക് സാധാരണ ഇവർ ബൈക്ക് ഓടിക്കും തുടങ്ങുമ്പോഴും ചെറുപ്പത്തിൽ തുടങ്ങുവാണെങ്കിൽ മറ്റേ മൂന്ന് വീലുള്ള ബൈക്ക് കിട്ടും അപ്പ സ്ലോലി നമ്മൾ ബാലൻസ് ബാലൻസ് ബാലൻസ് എടുത്ത് എടുത്തെടുത്ത് നമുക്ക് ഇപ്പം അതൊക്കെ പഠിക്കാനാണെ വൺ ഫോർ വീലിലേക്കു എക്സെഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ പ്രാക്ടീസ് എപ്പോഴും ഒരാളെ ബെസ്റ്റാ ബെറ്ററാക്കാൻ പറ്റും മെയിൻലി മുന്നോട്ട് പോവുമ്പം ചെയ്യേണ്ട ഒരു കാര്യമേയുള്ളു പ്രാക്ടീസിങ് അപ്പം വേറെ എന്താന്നെച്ചാൽ പ്രാക്ടീസില്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പിന്നെ വേറെയുള്ള എന്ന് വച്ചാൽ നമ്മൾ ബൈക്കോടിക്കുമ്പം നേരെ രീതിയിൽ നേരെ നേരുള്ള എൻണ്ട് ആദ്യം ഇതൊക്കെ ആ നിങ്ങൾ ആ പ്രാക്ടീസ് കൊണ്ട് കൂടെ നമുക്ക് പിന്നെ അവർക്ക് പെർഫെക്റ്റാക്കി അത് ആരെ ബൈക്ക് ഓടിക്കുന്ന രീതിയിൽ നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു എല്ലാ എല്ലാത്തിലും ഓടിക്കാൻ പറ്റും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ പ്രാക്ടീസ് മാത്രമാണ് പിന്നെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കണം എന്താ പറയാ എങ്ങനെയത് ബാലൻസ് ചെയ്യാൻ പറ്റും വെച്ചാൽ അത് ഓൾറെഡി ഒരഡ്വൈസ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓടിക്കുമ്പം നമ്മൾ വീല് നോക്കാതെ ഫ്രണ്ടോട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടും കറക്റ്റായിട്ട്